വൈദ്യുതി നമുക്കിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂർ തന്നെയാന്ന് പക്ഷേങ്കിൽ മഴക്കാലൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉള്ള സമയം ആണെങ്കിൽ പിന്നെ വൈദ്യുതി കട്ടാവാറുണ്ട് ഇടക്കിടക്ക് വൈദ്യുതി പോവുന്നത് കൊണ്ട് അത് അടുക്കളയിലുള്ള ജോലികളെ വളരെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അതുമാത്രമല്ല പഠിക്കുന്ന കുട്ടികളിൽ അത് ബാധിക്കുന്നു പഠനം പിറ്റേ ദിവസം എക്സാംമ്ള്ള സമയത്താണെങ്കിൽ തലേന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വൈദ്യുതി മുടക്കം കൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല ലാപ്പ് യൂസ് ചെയ്യുന്നത് ആണെങ്കിൽ ഇപ്പം ഒരു ടീച്ചറക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ലാപ്പ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിച്ച് കൊടുക്കുക അപ്പം ലാപ്പിൽ ചാർജ് ഇല്ലെങ്കിൽ അവർക്ക് ഐ സി ടി ബേസ്ഡ് ടീച്ചിങ് ക്ലാസ് റൂമിൽ പ്രാവർത്തികാക്കാൻ വേണ്ടീട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വൈദ്യുതി മുടക്കം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം വേനൽക്കാലത്തൊന്നും വൈദ്യുതിക്ക് വലിയ ക്ഷാമങ്ങളൊന്നും ഇല്ലെങ്കിലും ഇരുപത്തിനാലു മണിക്കൂറും ലഭിക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ കറണ്ട് പോയാലായി പക്ഷേ മഴക്കാലമാകുമ്പോൾ ഇത് വളരെ ഒരു പ്രശ്നമായിട്ട് കുട്ടികളെ ബാധിക്കുന്നു പഠിക്കുന്ന കുട്ടികളെ ബാധിക്കുന്നു വീട്ടിലെ അമ്മമാരെ ബാധിക്കുന്നു അവർക്ക് ജോലി ചെയ്യാനുള്ള തടസ്സങ്ങൾ വൈദ്യുതി ഇല്ലാണ്ടാകുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ വളരെ തടസ്സങ്ങളനുഭവപ്പെടുന്നു അങ്ങനെക്കെയാണ് നമുക്ക് വൈദ്യുതി മുടക്കം കൊണ്ട് പറയാൻ വേണ്ടി പറ്റുന്നത് പിന്നെന്താണ് ഫ്രിഡ്ജ് ഇസ്തിരിപ്പെട്ടി ഇതിനൊക്കെ വൈദ്യുതി വേണല്ലോ അപ്പം ഇതില്ലാണ്ടിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പറയാനുള്ളത്